കൃഷി സ്ഥലങ്ങളിൽ ഇപ്പോളുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ വളരെ എളുപ്പത്തിൽ കൃഷി കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സഹായിക്കുന്നു പണ്ട് ആളുകളെ നിർത്തി ചെയ്യുമ്പോൾ അതിനൊത്തിരി ദിവസങ്ങളും പണിക്കൂലിയും കൂടുതലായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുപയോഗിച്ചുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുമ്പോൾ അത് കുറച്ചുംകൂടെ എളുപ്പത്തിൽ തീർക്കുവാനും സമയബന്ധിതമായിട്ട് കൃഷി ചെയ്യുവാനും നമുക്ക് പ്രയോജനകരമായിട്ട് തീരുന്നു കാട് വെട്ടുന്നതാണെങ്കിലും കുഴിയെടുക്കുന്നതാണെങ്കിലും മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണെങ്കിലും ഇപ്പോൾ സാങ്കേതികവിദ്യ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുമൂലം പണികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടാകുന്നു എന്നുണ്ടെങ്കിലും ഭാവിയിൽ അത് വളരെ പ്രയോജനകരമായിട്ട് മാറും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണിക്കൂലിയും അവര് അത് പണി ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് പണിക്കാർ പണി ചെയ്യാൻ വന്നിട്ട് അത് ചെയ്യാതിരിക്കുകയും സമയം വെറുതെ കളയുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യുവാനും അതിൽ നിന്നും ഫലങ്ങൾ ഉൽപാദിപ്പിക്കുവാനും

കർഷകരെ കൂടുതൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തിക്കുവാനും സഹായിക്കും കൂടുതൽ പ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയിലൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുവാൻ കൃഷിക്കാരെ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥ വ്യതിയാനം മൂലം പല കാര്യങ്ങളും പണിക്കാരെ വെച്ച് ചെയ്യുമ്പോൾ ചെയ്ത് തീർക്കാൻ സാധിക്കാതെ പോകും എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യതയോടു കൂടി ചെയ്ത് തീർക്കുവാനും കാലാവസ്ഥ അതിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ മാറുകയും ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം മഴ ഉള്ള സമയങ്ങളിൽ കൃഷി ചെയ്യുവാൻ സാധിക്കുകയില്ല മഴ ഷേഡുകൾ അതുപോലുള്ള സാങ്കേതിക കാര്യങ്ങളുപയോഗിക്കുമ്പോൾ മഴക്കാലത്തും റബ്ബര് വെട്ടുവാനും അതിൽനിന്നും ആദായം ഉൽപാദിപ്പിക്കുവാനും സാധിക്കും ജാതി വെയ്ക്കേണ്ടതായ അവസ്ഥകൾ വരുമ്പോള് ജാതി മരത്തിനു വേണ്ടിയുള്ള കുഴികളെടുക്കുവാൻ സാങ്കേതിക വിദ്യകളുപയോഗിച്ച് കുഴികളെടുക്കുവാനും അത് ഓരോ ദിവസവും വളരെ ഫലപ്രദമായിട്ടുതന്നെ കുഴികളിൽ ജാതി തൈകള് വെച്ച് നട്ടുപോകുവാനും സാധിക്കും അതുകൊണ്ടതിന് ഒത്തിരി സമയമെടുക്കുകയോ അത്ര ദിവസങ്ങളെടുക്കുകയോ പണിക്കൂലി കൂടുതലാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോള് നമുക്ക് ലഭിക്കുന്ന വലിയൊരു പ്രയോജനം അതുകൊണ്ട് സാങ്കേതികവിദ്യകൾ ഇനിയും പല കാര്യങ്ങളിലും കണ്ടെത്താനുണ്ട് അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് കർഷകരെ കൂടുതൽ ആദായ വരുമാനത്തിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ പല യുവജനങ്ങളും കാർഷിക വൃത്തിയിലേർപ്പെടുവാനും അതിലൂടെ പണം സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ക്രമീകരണങ്ങൾ സാങ്കേതിക വിദ്യകള് മൂലം സാധിക്കും